അതെ എന്തായിരുന്നു കാര്യം വളരെ നന്ദി ഉണ്ട് കേട്ടോ നിങ്ങൾ എന്നെ കുറിച്ച് അറിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ എങ്ങനത്തെ ഹോട്ടലാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത് ഓ അതെയോ നല്ല കാര്യം തന്നെ നല്ല ഭക്ഷണം കൊടുക്കുക എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി എൻ്റെ കസ്റ്റഡിയിൽ അങ്ങനെ ഒരു നല്ല ഒരു സ്ഥലം ഉണ്ട് നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾക്കാർക്ക് നല്ല ആസ്വദിച്ച് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ട് ഒരു ഗ്രാമ പ്രദേശത്താണ് അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ത്രീ സ്റ്റാറ് ഫോർ സ്റ്റാറ് ഹോട്ടലൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു നല്ല ഒരു കണ്ണായ സ്ഥലമാണ് അത് വീട് ഒന്നും അതിൻ്റെ അടുത്ത് അടുത്ത് ഇല്ല അത് ഒരു ഒഴിഞ്ഞ സ്ഥലമാണ് പക്ഷെ നല്ല ഒരു പ്രകൃതി ഭംഗിയോട് പ്രകൃതി രമണീയമായ ഗ്രാമ സ്ഥലം സ്ഥലം ആണ് അത് അപ്പോൾ വീട് ഒന്നും അടുത്ത് അടുത്ത് ഇല്ല നിങ്ങൾക്ക് മാലിന്യമൊക്കെ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഒട്ടേറെ സൗകര്യങ്ങളും ആ സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും വീട് എന്തിനാണ് അതിൻ്റെ ഭാഗത്ത് കൂടെ തന്നെ ആണ് സ്കൂളിലേക്ക് കുട്ടികൾ നടന്ന് പോവുക അപ്പം സ്കൂളിൽ വരുന്ന കുട്ടികൾ ഉച്ച ഭക്ഷണത്തിന് അല്ലെങ്കിൽ ചായൻ്റെ കടിക്ക് അങ്ങനെ ഒക്കെ അവർക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഒരു ഹോട്ടല് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരേ അധികം ലാഭമേ ഉണ്ടാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല ലാഭം ആണ് ഉണ്ടാവുക ഒരുപാട് സ്കൂൾ കുട്ടികൾ വരില്ലേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിലൂടെ തന്നെ വീട് വീടുകളൊക്കെ അങ്ങോട്ടേക്ക് മേലോട്ട് ഭാഗത്തൊക്കെ ഉണ്ട് അതിലൂടെ നടന്ന് പോവുന്ന ആൾക്കാർ വൈകുന്നേരത്തെ ഒരു ചായയും കടിയും കഴിച്ചാലോ എന്ന് കരുതി അവിടെ കയറി കഴിക്കാം അങ്ങനെ ഒക്കെ ഉണ്ട് നല്ല രുചികരമായ ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞാൽ ആൾക്കാർ തനിയെ വരുമെന്നാണ് എനിക്ക് പറയാൻ ഉള്ളത് ഇല്ല ഇല്ല അങ്ങനെ അങ്ങനെ ഒന്നും ഇല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ട് അതിലൂടെ മുന്നോട്ട് തന്നെ ആണ് മുന്നിലൂടെ തന്നെ ആണ് കുട്ടികളൊക്കെ നടന്ന് പോവുന്നത് എന്തായാലും കുട്ടികൾ അവിടെ വരും എന്നുള്ള കാര്യത്തിൽ തീർച്ച ആണ് അവർക്ക് ശരിക്ക് പരാതി ആണ് കുട്ടികൾക്ക് ഇവിടെ അടുത്ത് ഒരു ഹോട്ടല് ഇല്ലല്ലോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ അതിന് മുന്നിലൂടെ പോവുമ്പോൾ അവർക്ക് എളുപ്പമായി ഭക്ഷണമൊക്കെ കഴിക്കാൻ എളുപ്പമായി അപ്പോൾ നല്ല കച്ചവടം അവിടെ കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ല ഇല്ല അതെല്ലാം നമ്മൾ നോക്കിയതാണ് വാസ്തു ദോഷം കാര്യങ്ങളൊന്നും ആ സ്ഥലത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല നല്ല സ്ഥലമാണ് സെൻ്റീന് ഒരു മൂന്ന് ലക്ഷം വച്ചിട്ടാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷം നിങ്ങൾ തന്ന് കഴിഞ്ഞാൽ വളരേ നിങ്ങക്ക് അതിന് അവിടെ നിന്ന് ലാഭം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഒരു നഷ്ട്ടം ഇല്ല മൂന്ന് ലക്ഷം ഒരു സെൻ്റിന് തന്ന് കഴിഞ്ഞാൽ എന്നാൽ കുഴപ്പമില്ല നിങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ അറിഞ്ഞ് അന്വേഷിച്ച് വന്നത് കൊണ്ട് ഒരു രണ്ടരക്ക് രണ്ടര നോക്കാം നമുക്ക് ഒരു സെൻ്റിന് ഒരു അൻപതിനായിരം വച്ച് തന്നാൽ മതി ആ ആ ഓക്കേ